ഞാനുപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഫ്ലാറ്റുകള് യൂറ്റൂബ് വാട്ട്സപ്പ് ഫേസ്ബുക്ക് ഇവയാണ് ഞാനുപയോഗിക്കുന്നത് ഇവയിലൂടെ നമുക്ക് നമുക്ക് ദൂരെയൊള്ള എല്ലാ കാര്യങ്ങളും അടുത്ത് അറിയാൻ സാധിക്കുന്നുണ്ട് ലോ പണ്ടൊക്കെ പത്രങ്ങളിലൂടെയും ഒക്കെയാണ് നമ്മള് ന്യൂസുകളൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് ഇന്നിപ്പോൾ നമ്മുടെ നമ്മുടെ വിരൽത്തുമ്പിൽത്തന്നെയാണ് എല്ലാ എല്ലാ ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങളും സ്പേയ്സ്ലെയാണേലും എല്ലാ കാര്യങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽത്തന്നെ ഇത് നമുക്ക് ഉണ്ട് ഏതിലും ഏറ്റവും പ്രയോജനപ്പെടുന്നത് എനിക്ക് വളരെ നാള് വളരെ അകന്ന് അടുത്ത് കൂട്ടുകാരികളൊക്കെ അകന്നിരിക്കുമ്പോള് അവരുടെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടും ഫ്രണ്ട്സിപ്പ് ഫ്രണ്ട്ഷിപ്പിന്റെ അകലം അകലം അകലം വർദ്ധിക്കാതിരിക്കാനും ഒക്കെയായിട്ട് ഈ പ്ലാറ്റ്ഫോമുകള് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് പിന്നെ പത്രമാസികളിലൂടെ അറിയാത്ത കാര്യങ്ങൾപോലും ഈ ന്യൂസ് വാട്ട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഒരുപാട് കാര്യങ്ങള് അറിയുവാനും അറിവ് നമുക്ക് ലഭിക്കുന്നതിന് ഇത് ഇടയാക്കുന്നുണ്ട്